ഈ കായികമേള എന്നു പറയുമ്പം നമുക്ക് പലതരത്തിലുള്ള ഫിറ്റ്നസ്സ് കിട്ടും ഇപ്പം നമ്മുടെ ബോഡിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ശരീരത്തിനാണെങ്കിലും പലതരത്തിലുള്ള ഫിറ്റ്നസ്സ് കിട്ടും ഇപ്പം നമ്മൾ ഇപ്പം ഉദ്ദാഹരണത്തിന് ഇപ്പം ഒരു ഓട്ടമോ ചാട്ടമോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്ക പോകുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ കുറച്ചു അധികം എനർജി വരും പിന്നേ അതേപോലെ തന്നെ എന്നു പറയുമ്പം ഇതുകൊണ്ടുള്ള ഉപകാരം എന്നു പറയുമ്പം ഇപ്പം നമുക്ക് ഇതിന് ഏതിനെങ്കിലും ഫസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നേ അതിൻ്റെ നാഷണൽ പോവാം അങ്ങനെ ഓരോരോ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇപ്പം സ്ഥലങ്ങളിൽ പോയിട്ട് അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് അതേപോലെ അതിൻ്റെ ഓരോരോ ഇതൊക്കെ ഇതാക്കാം ഇപ്പം എന്താണ് പറയുക പലതരത്തിലുള്ള നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അതിൻ്റെ മത്സരങ്ങൾക്ക് പോവാം മത്സരങ്ങൾക്ക് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട കുറേ ഇപ്പം സർട്ടിഫിക്കറ്റ് അതിൻ്റെ പറ്റിയ ഫിറ്റ്നസ്സ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് നമുക്ക് അവർ പറഞ്ഞു തരും അപ്പം നമുക്ക് തന്നെയാണ് അതിൽ നിന്ന് കുറേ ഉപകാരങ്ങൾ ഉള്ളത് നമ്മുടെ നമ്മുടെ എനർജിയാണ് അതിൽ നിന്ന് കൂടുന്നത് നമ്മടെ ഫിറ്റ്നസ്സ് കൂടും നമ്മുടെ സ്റ്റാമിന കൂടും അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ കൂടും ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം സാധാ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള കലോത്സവങ്ങളും ഒക്കെ പങ്കെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നവർക്ക് ജില്ലാ സ്റ്റേറ്റ് സ്റ്റേറ്റ് അങ്ങനെ ഓരോരോ ലെവല് ലെവൽ ഇങ്ങനെ പോവും അത് പോവുന്നതിന് അനുസരിച്ചു നമ്മുടെ ഇപ്പം എന്താണ് പറയുക ആരോഗ്യനിലയാണെങ്കിലും അതേ നമുക്ക് കിട്ടാൻ പോകുന്ന ഓരോ സർട്ടിഫിക്കറ്റ് വാല്യൂ എല്ലാം നമുക്ക് കൂടി കൂടിയാണ് വരികയുള്ളൂ അല്ലാതെ കുറഞ്ഞു കുറഞ്ഞു പോവില്ല അതുകൊണ്ട് മാക്സിമം ഇപ്പം എല്ലാ പരിപാടികൾക്കും പങ്കെടുത്ത് അതിൻ്റെ ഓരോ എന്നു വച്ചാൽ ഇഷ്ടത്തോടെ പോവുക ഇല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല ഇഷ്ടപ്പെട്ടു പങ്കെടുത്ത് അതിൻ്റെ ഓരോ ഓരോ ലെവല് ലെവല് ലെവൽ ഇങ്ങനെ പങ്കെടുത്ത് പങ്കെടുത്ത് പോകണം